നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പൊതു വിപണിയിൽ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മെയ്ൻ ആയിട്ട് ചെയ്യാനുള്ളത് നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം മധ്യവർത്തികൾ കൊണ്ട് തിന്നുന്നതാണ് ഇപ്പം നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു വിലയും തരത്തില്ല അവർ ഇരട്ടി വിലയ്ക്ക് നമുക്കിപ്പം നമ്മളോട് പത്ത് രൂപയ്ക്ക് സാധനം വേടിച്ചിട്ട് അവർ വിൽക്കുന്നത് അമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ ഒക്കെയായിരിക്കും വിൽക്കുന്നത് കർഷകൻ കൃഷിക്കാരൻ മണ്ണിൽ പണിയെടുത്ത് വന്യമൃഗങ്ങളോടും മിക്ക അണുബാധകളും ഈ വിഷവും അടിച്ച് നശിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു തരത്തിലാണ് നമുക്കോരോ സാധനങ്ങൾ ആദായങ്ങൾ കിട്ടുന്നത് ആ സാധനം കൃഷിക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പത്തേയും പുച്ഛമാ അവൻ പറയുന്ന അല്ലെങ്കിൽ കച്ചവടക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പത്തേക്ക് അവൻ പറയുന്ന വിലയ്ക്ക് നമ്മൾ വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു നിശ്ചിത വില ഒരു താങ്ങ് വിലയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നിട്ട് നമുക്ക് അവരെ അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാവുന്നു കൊടുക്കാനായിട്ട് നിർബന്ധിതരാവുന്നു അപ്പം ഒരു ഓപ്പൺ മാർക്കറ്റ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് കൃഷി ഇങ്ങ് മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് കൃഷിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കുവാനും അവർ പൊതുജനങ്ങൾക്ക് നല്ല സാധനങ്ങൾ തെരഞ്ഞെടുക്കാനും ഒക്കെയുള്ള ഒരു അവസരം അതുവഴി ഉണ്ടാവും അതാണ് മെയിൻ ആയിട്ട് ഉള്ളത്

അപ്പം അങ്ങനുള്ള കാര്യങ്ങളിൽ ഒരു ഒന്ന് സർക്കാർ തലത്തിൽ അതൊരു ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അതാണെനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ കർഷകങ്ങൾടെ കാർഷികോൽപ്പന്നങ്ങൾ മധ്യവർത്തികളില്ലാതെ കയറ്റുമതി ചെയ്യാനായിട്ട് ഒക്കെയാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അങ്ങനുള്ള കാര്യങ്ങളിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ അത് കുറച്ച് കൂടുതൽ സുതാര്യമാക്കുകയും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃഷി കൃഷി ഓഫീസ്കൾ വഴിയൊക്കെയായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാ അപ്പം അങ്ങനുള്ള കാര്യങ്ങളിൽ നമൂക്ക് ഒരു ഒരു താങ്ങ് പോലെയോ അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കർഷകരെ സഹായിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് അപ്പം അതാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത് പറയാനുള്ളത് പിന്നെ കർഷകർക്കോരോ സംഘടനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കർഷകർ അസംഘടിതരാണ് അപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് വിപണയിൽ വിറ്റ് അത് നല്ലൊരു കാശ് സമ്പാദിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള കൂട്ടത്തിലാണിപ്പം ഞാൻ കുറച്ച് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വില കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എടുത്ത് വെച്ചത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയുള്ളൂ